ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ആ ഫുഡ് റെസ്റ്റോറന്റ് അല്ലേ ആ ഞാൻ എൻ്റെ പേര് ആതിരാന്നാണ് ഞാനൊരു ഓർഡർ ചെയ്യാൻ വേണ്ടീട്ട് വിളിച്ചതായിരുന്നു ഒരു ഫുഡേ ഇപ്പം കുഴിമന്തി അവൈലബിളാണോ ആ ആണോ എനിക്കൊരു ഞാൻ എടുത്ത് വെച്ചാൽ മതിയേ ഞാൻ കുറച്ചു കഴിയുമ്പോഴത്തേക്കിനും വന്ന് പിക്കെയ്തോളാവേ ഒരു അഞ്ച് കുഴിമന്തി വേണാരുന്നു ആ എക്സ്ട്രാ മയോണൈസും കൂടെ വെയ്ക്കണേ അതിനകത്തെ വേറെ എന്താ ഡ്രൈ ചിക്കനായിട്ടുള്ള എന്താ അവിടെ സ്പെഷ്യലായിട്ടുള്ളത് ആഹ് ഡ്രാഗൺ ചിക്കനൊക്കെ അവൈലബിളാണോ ആണോ ഓക്കെ പിന്നെ ഓക്കെ ഒരുപാട് ഒരുപാട് ഡ്രൈ ചെയ്യണ്ട ഒരുപാടതങ്ങ് ഫ്രൈ ചെയ്യണ്ടാട്ടോ കുറച്ച് ലൂസായിട്ട് കൺസിസ്റ്റൻസി കിടന്നാൽ മതി ഡ്രാഗൺ ചിക്കനെ ആ ഒരുപാട് സ്പൈസി ആവണ്ട ആ പിന്നെ ഒരു ഗാർലിക്ക് റൈസും കൂടെ എക്സ്ട്രാ എക്സ്ട്രാ വേണം ആ ഒന്ന് സ് റെഡിയാക്കി വക്കുമ്പോഴത്തേക്കിനും ഒരു പത്തു മിനിറ്റ് പത്തു ഒരു പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ വന്ന് പിക്കെയ്തോളാം നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ അടുത്തുള്ള ഓപ്പോസിറ്റുള്ള മിനി ലോഞ്ചല്ലേ ആ അവിടെ വന്നേക്കാവേ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വരാവേ താങ്ക് യൂ